അ മേഡം ഞങ്ങൾ എ എറണാകുളത്തൂന്ന് വിളിക്കുന്നത് ആയിരുന്നു ആ അപ്പം നമ്മൾ വയനാട്ടിലെ ടൂറിസ്റ്റ് പ്ലേയിസൊക്കെ കാണാൻ വേണ്ടീട്ട് അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട് അപ്പം നമുക്കവിടുത്തെ ട്രെഡീഷണൽ ഫുഡ്സ് എന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നേട്ടോ വിളിക്കുന്നത് അ ഓക്കെ ഓക്കെ

ഓക്കെ വൺ സിക്സ്റ്റി ആണല്ലേ ആ നമുക്ക് നോൺ വെജ് അങ്ങനെ എന്തേലൊക്കെ വേണമെങ്കിലോ ആ ഓക്കെ മാഡം നമ്മളെ നെക്സ്റ്റ് വീക്കാണ് വരാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ റൂമ്സും കാര്യങ്ങളുമൊക്കെ അവിടെ അവൈലബിൾ ആണോ അ ഓക്കെ നമ്മളിപ്പോൾ എറണാകുളത്ത്ന്ന് ട്രെയിനാണ് വരുന്നത് കോഴിക്കോട് വരെ ട്രെയിനുള്ളു അപ്പോൾ അവിടുന്ന് നമുക്ക് വല്ല ടാക്സിയോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുവോ ഞാനേ എന്നാ വരുന്നതെന്ന് ഒരു രണ്ട് ദിവസം മുൻപ് മാഡത്തിനെ കോൺടാക്ട് ചെയ്യാം അപ്പം മാഡം കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞ് തന്നാൽ മതിയെ വണ്ടി വിടുന്നതിൻ്റെ ആ ഓക്കെ ഓക്കെ അ ഓക്കെ ഓക്കെ മാഡം ഞാനെന്തായാലും പറഞ്ഞിട്ടേ വരു അ ഓക്കെ താങ്ക് യൂ